ഞാൻ നെയ്ത്തും തുന്നലും ആരംഭിച്ചത് പത്താം ക്ലാസിൽ പഠിക്കുമ്പോഴാണ് അതായത് രണ്ടായിരത്തി പതിനാലിൽ എനിക്ക് അതിന് മുന്നെ ഞാൻ സ്കൂൾ കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു അതിലൊക്കെ പങ്കെടുത്ത് ഫസ്റ്റൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ അവധി കാലത്ത് എൻ്റെ അമ്മ അമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ടിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഏ നെയ്ത്ത് പഠിപ്പിക്കാൻ വിടുവാണ് ചെയ്തത് അപ്പം അവിടെ ഒരു മൂന്ന് നാല് മാസം ഞാൻ പഠിക്കുകയുണ്ടായി ആ സമയത്ത് എന്താ പറയുക എല്ലാ തുണിത്തരങ്ങളും തയ്ക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഏ ചുരിദാറ് അതുപോലെ കുട്ടികളുടെ ചെറിയ ഡ്രസ്സ് യൂണിഫോമ് അങ്ങനെത്തെ എല്ലാ ഐറ്റംസും എല്ലാ ഐറ്റംസും തന്നെ തയ്ക്കാൻ പഠിച്ചിട്ടുണ്ട് അതിൽ എനിക്ക് താല്പര്യം തോന്നാൻ കാരണം ഞാൻ യൂട്യൂബിലും ഒക്കെ കാണുമ്പോൾ ഒരുപാട് പേര് ഈ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഒക്കെ ചെയ്തേക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതുപോലൊക്കെ തേക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം എനിക്ക് ഞാൻ അതുപോലെ നന്നായിട്ട് അവിടെ പോയി പഠിച്ചതിന് ശേഷം നന്നായിട്ട് ഞാൻ തയ്ക്കാൻ പഠിച്ചു പല എൻ്റെ കുഞ്ഞിനാണെങ്കിലും കുഞ്ഞിനെ പല പല തരത്തിലുള്ള ഡ്രസ്സുകൾ ഞാൻ തയ്ച്ച് കൊടുക്കാറുണ്ട് അതുപോലെ എൻ്റെ അമ്മയ്ക്ക് നൈറ്റ് എൻ്റെ അമ്മേയുടെ ഫ്രണ്ട്സൊക്കെ കൊണ്ട് തരുമ്പോഴും ഞാൻ തയ്ച്ച് കൊടുക്കാറുണ്ട് പ്രചോദനം തന്നത് യൂട്യൂബിലെ ചെല ചേച്ചിമാരൊക്കെയാണ് അപ്പം എന്താ ഒന്നും ഒരു ചെറിയ ഒരു മെഷീൻ കൊണ്ട് പലതരത്തിലുള്ള അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഞാൻ പഠിച്ചത് അങ്ങനെയാണ് പിന്നെ എനിക്ക് ഇത് ഏറ്റവും കൂടുതലെന്നെ ഈ നെയ്ത്ത് പഠിക്കാനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ അമ്മ തന്നെയാ കാരണം ഞാനിങ്ങനെ ഒരാഗ്രഹം പറഞ്ഞ് ഞാൻ യൂട്യൂബിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മേനെ കാണിച്ചു കൊടുക്കും അമ്മേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് വരുമാനം ഉണ്ടാക്കൻ പറ്റും ഇന്നല്ലെങ്കിൽ നാളെയുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഇതൊരു സ്ഥിര വരുമാനമാ കാരണം ഒരിക്കലും ഈ നെയ്ത്തും തുന്നലും സംഭവം ഒരിക്കലും തീർന്നു പോകുന്ന ഒന്നല്ല എത്ര ഈ കണ്ട എല്ലാം ഈ കണ്ട കാലം മുഴുവൻ മനുഷ്യനുള്ള കാലമത്രയും തുണിത്തരങ്ങൾ നമ്മൾ തയ്ച്ചേ പറ്റുള്ളൂ അപ്പം അത് നമുക്കെപ്പോഴും ഉപകാരം അങ്ങനെ ഒരു ഇത് നമ്മൾ പഠിച്ചിരുന്നാൽ എപ്പോഴും നമുക്ക് ഉപകാരം മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഇന്നല്ലെങ്കിൽ നാളെയാണെങ്കിലും പല പല മോഡേൺ ഡ്രസ്സുകൾ അല്ലെങ്കിൽ പുതിയ പുതിയ ഐറ്റംസൊക്കെ വരുമ്പോൾ നമ്മൾ ആ രീതിയിൽ പഠിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉപകാരപ്പെടും സാമ്പത്തികപരമായിട്ട് നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും പിന്നെ ഇന്നൊക്കെ ഒരു ചുരിദാറ് തയ്ക്കണമെങ്കിൽ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപയൊക്കെ കൊടുക്കണം ഇല്ലേ പുറത്ത് പോയി തയ്ക്കാൻ കൊടുക്കുവാണെങ്കിൽ മാക്സിമ നമ്മൾ നമ്മളായിട്ടത് തയ്ക്കാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വരുമാനാ പുറത്ത് നമ്മൾ തയ്ച്ച് കൊടുക്കുമ്പം നമുക്കൊരു വരുമാനം അല്ലേ അപ്പം ഞാൻ അന്ന് എനിക്കതാ കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് തോന്നിയത് അതും പിന്നെ പല പല ഡിസൈനൊക്കെ ചെയ്ത് മറ്റുള്ളവരുടെ ഒരു സന്തോഷം കാണുമ്പം നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ചെയ്ത് കൊടുക്കുമ്പം അവരുടെ മുഖത്ത് കാണുന്ന ഒരു പുഞ്ചിരി അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്ന ഒരു കാര്യാ അതൊക്കെയാണ് മെയിനായിട്ടും ഞാൻ തയ്യൽ പഠിക്കാനായിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് തോന്നാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്